ടെക്നോളോജി എന്നു പറയുമ്പോള് അതിന് രണ്ട് തരത്തിലുള്ള ഇതുണ്ട് ഒന്ന് ഗുണവുമുണ്ട് എന്നാല് ദോഷവും ഉണ്ട് ഗുണമെന്ന് പറയുമ്പോള് ഇപ്പോള് എല്ലാവരുടെയും ഒരു രീതിയും രൂപവും ഭാവവുമൊക്കെ ചിലവർക്ക് സാമ്പത്തികം കാണത്തില്ല ട്യൂഷന് വിടാനുള്ള ഒരിത് കാണത്തില്ല അപ്പോള് ഇപ്പോള് ഓൺലൈനിലാണേലും അവർക്ക് ക്ലാസ്സൊക്കെ കാണാം നെറ്റ് ചാർജെയ്താമതി അവർക്ക് ക്ലാസ്സൊക്കെ കാണാം യൂട്യൂബിലാണേലും ഗൂഗിളിലാണേലും എവിടെ ഇപ്പോള് സെർച്ചെയ്താലും നമുക്ക് ക്ലാസ്സൊക്കെ കിട്ടും ആപ്പ് വഴിയാണേലും ക്ലാസൊക്ക നമുക്ക് പഠിക്കാനൊക്കെ പറ്റും പക്ഷെ വേറെ ഒരു ഒരു ഒരു ഇതായിട്ടുള്ള കാര്യം മോശമായിട്ടുള്ള കാര്യമെന്നുപറഞ്ഞാല് ഇപ്പോള് ഇത് ഫോണിൽത്തന്നെ ടെക്നൊളജീസിൽത്തന്നെ ഗെയിം വരും റീൽസ് വരും പിന്നെ വേറെ ആ വേറെ അദർ ആക്ടിവിറ്റീസൊക്കെ വരും അപ്പോൾ ചിലവര് റീൽസിനഡിക്റ്റായിരിക്കും ഇപ്പോള് അവർക്ക് ഇപ്പോള് പഠിക്കാനായിരിക്കുന്നേന്നും പറഞ്ഞ് അവര് റീൽസ് കാണാൻ ഒരു റീൽസ് കാണാൻ നോക്കുമ്പോള് അവർക്കത് കാണണമെന്നു തോന്നുവാണെങ്കില് അവര് അത് വയ്ക്കും പിന്നെ അടുത്തത് പിന്നെ അടുത്തത് അടുത്തത് അങ്ങനങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും എന്നാല് അവര് സമയം പോകുന്നതുപോലും അറിയത്തില്ല പിന്നാ പഠിച്ചുകഴിഞ്ഞോന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവരോര്ക്കുന്നത് ആ പഠിക്കാനിരുന്നതാണല്ലോ എന്ന് അപ്പോള് അവര് പഠിക്കാനിരിക്കുമ്പോള് അവർക്ക് കോൺസെൻട്രേഷനില്ല അവർക്ക് അവർക്ക് വീണ്ടും ആ ഒരു ഇത് വീഡിയോ റീൽസ് കാണണമെന്ന് തോന്നും അതിൻ്റെ ബാക്കി കാണണം എന്നുതോന്നി അവര് വീണ്ടും അത് വെച്ചോണ്ടിരിക്കും അങ്ങനെ അവര് അത് സ്ഥിരം ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് കണ്ട് അതിന് അഡിക്റ്റായിപ്പോകും പിന്നെ ഗെയിമെന്ന് പറഞ്ഞാല് ഇപ്പോള് മിക്ക പിള്ളാരും ഗെയിം കളിക്കും ഫ്രീ ഫെയര് പബ്ജി അങ്ങനെ പലതരം ഗെയിം മിക്ക പിള്ളാരും കളിക്കും ഇപ്പോള് ഗേൾസും കളിക്കും ബോയ്സും കളിക്കും ആ അവര് ഇപ്പോള് അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പഠിക്കാനെന്നുംപറഞ്ഞിരിക്കുവാണേലും ചിലവരിപ്പോള് അതും തുറന്നുവച്ചിരിക്കും വേണമെങ്കില് ആരും അറിയാതെ അവരിരുന്നു കളിക്കുന്നതുകാണായിപ്പോള് സീക്രെട്ടായിട്ടു വരെ പോയിരുന്ന് കളിക്കുന്നത് ഈ അഡിക്ടായ പിള്ളേര് സീക്രെട്ടായി പോയിരുന്നുവരെ കളിക്കാറുണ്ടിപ്പോള് ഒന്ന് മാതാപിതാക്കള് വരാന് നേരത്ത് അവർക്കിപ്പോള് ജോലിയുടെ ടെൻഷൻ കാണും അല്ലാതെ വീട്ടിലെ ടെൻഷൻസ് മൊത്തത്തില് പ്രഷറായിട്ട് അവര് വരാൻ നേരത്ത് ഇപ്പോള് ഇവര് ഒളിച്ചിരുന്ന് കളിക്കും അവര് ഇവരുടെ പുറകേ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പോള് ഇവര് പഠിക്കാനാണെന്നും പറഞ്ഞ് പോയിരിക്കുന്നു ഇവര് വീഡിയോ കാണാണോന്ന് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ പക്ഷേ ഇടയ്ക്കൊക്കെ വന്നു നോക്കും പിടിക്കും പിന്നെ പഠിക്കാൻ പറയും വീണ്ടും പഠിക്കാനിരുത്തിയിട്ട് പോവും പക്ഷെ അവര് വീണ്ടും എന്തോ ചെയ്യുന്നേന്ന് വീണ്ടും വന്നു നോക്കും പഠിക്കാനിരിക്കുകയാണെങ്കില് അവര് പോവും പിന്നെ എന്തുവാ ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾക്കറിയത്തില്ല അവര് ചിലപ്പോള് വീണ്ടും വീഡിയോ എടുത്തുവെച്ച് കാണും ചിലവരാണെങ്കില് വീണ്ടും എടുത്ത് കളിക്കും പിന്നെ അവർക്ക് ഇപ്പോള് എന്തുവാണ് അഡിക്റ്റായ പിള്ളേർക്കെന്ന് പറഞ്ഞാല് ബാക്കടിക്കാന് ഭയങ്കര പാടായിരിക്കും മനസ്സിലായോ ബുദ്ധിമുട്ടായി ആ ബാക്കടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബേക്കടിക്കാൻ പോവുമ്പോല് വീണ്ടും ഒരു വീഡിയോ കാണാം കാണാം കാണാമെന്നു പറഞ്ഞ് അവരിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് സമയംപോകുന്നതുപോലും അവരറിയത്തില്ല ഇപ്പോള് നമ്മുടെ വീട്ടില് ആരേലും വന്നാല് ഇപ്പോള് കളിക്കുന്നവരാണെങ്കില് ഇപ്പോള് മാതാപിതാക്കള് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നവരാണെങ്കില് എന്നാല് പിള്ളാരല്ലേ ഇച്ചിരി നേരം ഒന്ന് ഫോണിൽ കളിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുപറഞ്ഞ് ഇപ്പോള് ആരേലും വന്നാല്ത്തന്നെ അവര് നോക്കാതെ ഇങ്ങനിരുന്ന് കളിച്ചോണ്ടിരിക്കും അപ്പോള് വരുന്നയാൾക്കും ഒരു ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോള് ആ ഒരു ലെവലില് ഈ പറയുന്ന ടെക്നോളജി ഭയങ്കര പുറകോട്ടാണ് എന്നാൽ ചില കാര്യത്തിൽ യൂസ്ഫുള്ളും ആണ്